അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആറ് ലക്ഷത്തി അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് ഏഴ് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ആറുപത്തഞ്ച് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഒൻപത് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട്